കൂടൂതലായും സന്ദർശകർ എത്തുക എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ എത്താറുണ്ട് കൂടുതലായിട്ടും വയനാട് ജില്ലയിൽ അകത്താണ് കൂടുതലായിട്ട് സന്ദർശിക്കാൻ കഴിയുന്ന ജില്ല സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് വൈത്തിരില് പൂക്കോട്ട് ലേക്ക് അത് ഒരു തടാകം തന്നെയാണ് തടാകം തടാകത്തിലൂടെ കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഉള്ള യാത്ര തന്നെ ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് അത് സെൽഫ് ആയിട്ട് തന്നെ പോയി വരാവുന്നതാണ് പിന്നെ വാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ തടാകത്തിൻ്റെ ചുറ്റുമായിട്ട് റൺ ചെയ്യാനുള്ള വാക്കിംഗ് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ രസകരമായ ഇതു തന്നെയാണ് പിന്നെയുള്ളത് വയനാട്ടിൽ തന്നെ തൊള്ളായിരം കണ്ടീന്ന് ഒരു പ്ലേസ് ഉണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഉള്ളത് അത് നല്ലൊരു വ്യൂ ആണ് ഒരു മലേൻ്റെ ടോപ്പ് മലേൻ്റെ ടോപ്പൊന്നുമല്ല കുറച്ച് ഹൈറ്റിലേക്ക് കയറി പോകണം ഓഫ് റോഡ് പോലെ കയറിപ്പോയി അവിടന്ന് കുറച്ച് ഇങ്ങനെ നോക്കി കഴിഞ്ഞാല് കാണാം ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങള് അതിലൊക്കെ നല്ല ഫോട്ടോ ഷൂട്ടും ആസ്വദിക്കാൻ നല്ല കഴിവുള്ള സ്ഥലാണ് അതുപോലെയാണ് കോഴിക്കോട് പരദേശി സ്ട്രീറ്റിലെ പൂഞ്ഞാർ കൊട്ടാരം കൊട്ടാരം തന്നെ പുറമെ കാണുന്ന പോലത്തെ അല്ല കുറച്ച് വേറെ ജി സംസ്ഥാനങ്ങളിൽ കാണുന്നത് കാട്ടും കുറച്ച് നല്ല ടൈപ്പ് മുന്നേ കേരളത്തില് ആസ്വദിക്കാൻ പറ്റിയ ഒരു കൊട്ടാരമാണ്